ഞങ്ങൾ ഒരു ഓഫീസിൽ പോയപ്പോ ഞങ്ങൾക്ക് ഞങ്ങളെ അടുത്തുള്ള ഒരാൾക്ക് വേണ്ടി ഒരു അപേക്ഷ വയ്ക്കണആയിരുന്നു അപ്പോൾ അത് അവർ ഇംഗ്ലീഷിലാണ് തന്നത് ഇംഗ്ലീഷിൽ തന്നപ്പോൾ നമ്മൾക്ക് അത് അവർക്ക് മലയാളത്തിൽ അവർക്ക് മലയാളത്തിൽ അത് അറിയത്തുള്ളായിരുന്നു അപ്പം ഞാൻ അത് വായിച്ച് അത് മലയാളത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്ക് അത് മനസ്സിലായി അപ്പോൾ അവർ അത് അനുസരിച്ച് ആ മലയാളത്തിൽ പറഞ്ഞ് കൊടുത്തത് അനുസരിച്ച് അവർ ആ അപേക്ഷ വച്ചു കാര്യങ്ങൾ കൊടുത്തു അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ ഒരു അനുഭവമാണ് അല്ലാതെ നമ്മൾ ഇപ്പം വേറെ ഒരു ഭാഷ നമ്മൾ ഇപ്പം എല്ലാ ഭാഷ അറിയുവാനൊന്നും നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പം അറിയാവുന്ന ഭാഷ നമ്മൾ വേറെ ഒരാളുമായിട്ട് പങ്കു വച്ച് നമുക്ക് അറിയാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസിലാക്കി അവർ ആ ഭാഷ അനുസരിച്ച് അവർ മനസിലാക്കിയിട്ട് അപേക്ഷ വയ്ക്കുമ്പം അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടി അല്ലാതെ നമ്മൾ ഇപ്പം എനിക്ക് ആ ഭാഷ അറിയത്തില്ല അത്കൊണ്ട് ഞാന് അത് ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കാതെ ഈ ഭാഷ അറിയാവുന്ന രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആർക്കാണോ അത് ഉപകാരപ്പെടുന്നത് അവർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് വലിയ അനുഭവങ്ങളെന്ന് പറയാൻ അങ്ങനത്തെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങളെ ഉള്ളു സഹായങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളു നമ്മുടെ ഇംഗ്ലീഷ് ഇപ്പം മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയണമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് ചിലർക്ക് മലയാളം വായിക്കാൻ അറിയാത്തവരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ അവരെ സഹായിക്കുക